പാട്ടിലൂടെ നമ്മളുടെ ഉള്ളിലെ വികാരങ്ങൾ നമ്മളുടെ ശബ്ദത്തിലൂടെയും എക്സ്പ്രഷനിലൂടെയും മറ്റുള്ളവരെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അതും പാട്ടിൻ്റെ രീതികൾ ആ ഓരോ പാട്ടിനും ഓരോ രീതിയുണ്ട് ആ പാട്ടിലാണ് പാട്ടിൻ്റേതായ ഒരു എക്രെസ്പ്രഷൻ ഉണ്ട് അത് കൂടാതെ അവനവൻ്റെ പാട്ടിൻ്റെ കഴിവ് കൊണ്ട് അതിൽ സൃഷ്ടിക്കാവുന്ന പല രീതികളുമുണ്ട് ആ രീതിയിൽ അതൊരു പാട്ടുകാരനെ സംബന്ധിച്ച് നല്ല ഒരു പാട്ടുകാരനെ സംബന്ധിച്ച് അവർക്ക് അതിനുള്ള അറിവും കഴിവും ഉണ്ടായിരിക്കുന്നത് പിന്നെ പാടാനുള്ള കഴിവ് ഉള്ള ആളാണെങ്കിലേ അവർക്ക് അങ്ങനെയുള്ള സിദ്ധി കൂടെ കിട്ടുകയുള്ളു ആ ഏതൊരു പാട്ടായാലും ആ പാട്ടിന് ഒരു എസ്പ്രഷൻ ഉണ്ട് അത് കൂടാതെ ആ പാടുന്ന ആളിന് കൈയിൽ നിന്ന് ഒരു എക്സ്പ്രഷൻ അവിടെ ഇടാം അത് പാട്ടിൻ്റെ രീതിയും സ്വഭാവവും അനുസരിച്ചും പിന്നെ അവനവൻ്റെ മനസ്സിൻ്റെ രീതിയും സ്വഭാവവും കൂടെ അനുസരിച്ച് വേണം അത് പാടി ഫലിപ്പിക്കാൻ അങ്ങനെ പാടുന്ന അനവവധി പാട്ടുകാരുണ്ട് അത് അവരുടെ ഒരു കഴിവിൻ്റെ ഭാഗമാണ് എല്ലാവർക്കും ആ കഴിവ് കിട്ടണമെന്നില്ല നല്ല കഴിവുള്ളവർ ആ പാടിൻ്റെ പാട്ട് മേഖലയിൽ നല്ല കഴിവുള്ളവരുണ്ട് അവർക്കേ അതിനുള്ള കഴിവ് സിദ്ധിക്കുകയുള്ളൂ അത് അങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോഴാണ് മറ്റുള്ളവർക്ക് അത് ഇമ്പമായിട്ട് തോന്നുന്നതും അത് കേട്ടിരിക്കാനായിട്ട് താൽപ്പര്യം തോന്നുന്നതും ആ അങ്ങനെ ആ കേട്ടിരിക്കുമ്പോൾ അവർക്കും ഒരു താൽപ്പര്യം തോന്നി അത് തുടർന്ന് കേൾക്കണമെങ്കിലും ആ പാട്ടിൻ്റെ രീതിയാണെങ്കിലും എസ്പ്രഷനിലും എല്ലാം മറ്റുള്ളവരിൽ ഒരു ആകർഷണം തോന്നിക്കണം ഒരു അട്രാക്ഷൻ ഉണ്ടായെങ്കിലേ ആ പാട്ട് വിജയിച്ചെന്ന് പറയാൻ പറ്റു അതിന് പാട്ടുകാരൻ വളരെ എഫേർട്ട് എടുത്ത് പാടിയെങ്കിലേ അത് സാധിക്കാവൂ അതിന് പ്രത്യേക പാട്ടിൽ ഒരു അറിവും അതിൻ്റേതായ ഒരു കഴിവും ബുദ്ധിയും എല്ലാം പാട്ടിൻ്റെ മേഖലയിലായാലും നമുക്ക് ആവശ്യമാണ് അത് അതൊരു സൗഭാഗ്യമായിട്ട് കിട്ടുന്ന ഒരു കഴിവ് കൂടിയാണ് പാട്ടെന്ന് പറയുന്നത് ആ ആ കഴിവുള്ളവർക്ക് ഈ എസ്പ്രഷനും എല്ലാം ഏതൊരു പാട്ടിലും ചെലുത്താനും അവയിലൂടെ പാട്ട് വികസിപ്പിക്കാനും മറ്റുള്ളവർക്ക് ആസ്വദിപ്പിക്കാനും അത് കഴിയുന്ന വിധത്തിൽ അവർക്കേ അതിന് കഴിവുള്ളു പിന്നെ ഓരോരുത്തരുടെയും സ്വഭാവത്തിൻ്റെ രീതിയിൽ കൂടിയും ഈ പാട്ടിനെ കൂട്ടി കൊണ്ടു പോകാം അവയെ അതിനെ ആസ്വദിപ്പിക്കാൻ മറ്റുള്ളവർക്ക് കാതിന് ഇമ്പമുണ്ടാക്കുന്നതിലാണല്ലോ പാട്ടിൻ്റെ സൗന്ദര്യം ഇരിക്കുന്നത്